ഒരു ബിസ്നസ്സ് നടത്തി മുമ്പോട്ടു കൊണ്ടുപോവുകയെന്നത് വലിയൊരു ടാസ്ക്കാണ് ഈ ബിസ്നസ്സ് മുമ്പോട്ടു പോകണമെങ്കിൽ നമുക്കാദ്യം വേണ്ടത് നമുക്കൊരു മികച്ച കുറേ ലേബേഴ്സാണ് അവരുമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകളാണ് നമ്മുടെ ബിസ്നസ്സിനെ നിലനിർത്തുന്നത് നമ്മൾ നന്നായിട്ടുതന്നെ അവരോട് ഇടപെട്ട് അവർക്കുവേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം പിന്നീട് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിനെ നമ്മൾ നന്നായിട്ട് ഡീൽ ചെയ്തതിന് അനുസരിച്ച് നമ്മുടെ ബിസ്നസ്സ് വീണ്ടും വീണ്ടും ഡെവലപ്പാവും അവരോട് നമ്മൾ മോശമായി പെരുമാറിയാൽ നമുക്കൊരു കസ്റ്റമറ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരുപാട് കസ്റ്റമേഴ്സ് നഷ്ടപ്പെടും നമ്മുടെ മികച്ച ഇടപെടലുകളാണ് നമ്മുടെ ബിസ്നസ്സ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പിന്നീടുള്ളത് നമുക്ക് ആധുനിക സൗകര്യങ്ങൾ ഒരുപാട് വേണം മിഷ്നറീസ് എല്ലാം നല്ലതുപോലെ ഉണ്ടെങ്കിലെ നമ്മുടെ ബിസ്നസ്സ് മുന്നോട്ട് കൊണ്ടുപോകുള്ളു ഉദാഹരണം ഒരു ഐസ് ക്രീം ഫാക്ടറിയാണ് നാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റേതായ എല്ലാ ഉപകരണങ്ങളും വേണം അല്ലാതെ പഴമയിൽക്കൂടെത്തന്നെ പോകാനാണെങ്കിൽ നമ്മുടെ ബിസ്നസ്സ് മുന്നോട്ട് പോകില്ല